ഇപ്പോൾ വികസനത്തിൻ്റെയും വളർച്ചയുടേയും കാര്യത്തില് കേരളത്തില് എല്ലാ ജില്ലക്കാരും ഒരേ പോലെ തന്നെയാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം നമ്മള് കോഴിക്കോട് ജില്ലയില് മാത്രം ഇപ്പം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങള് മാത്രമായിട്ടില്ല എല്ലാ ജില്ലക്കാ ജില്ലയിലും ഒരുവിധം എല്ലാ ടൗണുകളാണെങ്കിലും അതായത് പുഴകളാണെങ്കിലും കടലുകളാണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയില് മലിനീകരണപ്പെട്ടോണ്ടിരിക്കയാണ് കാരണം നമ്മുടെ ഇപ്പം അതായത് ഇപ്പം കടൽലേക്കൊക്കെ പോകുന്ന ഫിഷ് അതായത് ഫിഷിംഗ് ബോട്ടുകള് കപ്പലുകള് ഇതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ തള്ളുന്നത് കടലിലേക്കാണ് ഇപ്പം കടലൊക്കെ നല്ല രീതിയിലുള്ള മാലിന്യം മുക്തമാകണമെങ്കിൽ ഇത് ഒന്ന് ഇത് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സജ്ജീകരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികള് ഒരുപാട് ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇതിനെതിരെ നല്ല രീതിയില് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടീട്ട് എന്തെങ്കിലൊക്കെ ചെയ്യണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ടൗണിലൊക്കെ ഓടകളൊക്കെ വൃത്തിയാക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യം അപ്പോൾ ഓടകളൊക്കെ കെട്ടികെടക്കുന്നതു കൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പലരീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് പലർക്കും വരുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ട് നമ്മള് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കുക ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കു